ഓരോ വർഷം തോറും വർഷം മാറും തോറും വയനാട് ജില്ലയിൽ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും പുരോഗമിക്കാത്ത ഒരു സ്ഥലമായിരുന്നു വയനാട് എന്നു പറയുന്നത് എന്നാൽ ഇന്ന് ഓരോ വർഷത്തോളം വർഷമനുസരിച്ചും വയനാട് ജില്ലയിൽ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ലാത്ത ആദിവാസികളുടെ മാത്രമായിരുന്ന സ്ഥലം ആയിരുന്നു വയനാട് എന്നു പറയുന്നത് എന്നാൽ ഇന്ന് അതെല്ലാം മാറി അതിൻ്റെ ആൾക്കാരും എല്ലാം മാറി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് വയനാട് വയനാട് എന്നു പറയുന്നത് അതിനെല്ലാം ഇതിനെല്ലാം അടിസ്ഥാന ഘടകങ്ങൾ ആയിട്ടുള്ള കാരണങ്ങൾ എന്നു പറയുന്നത് ഏറ്റവും വലിയ ഘടകം എന്നു പറയുന്നത് അതിനു വേണ്ടി പരിശ്രമിക്കുന്ന പാർട്ടിയിലെ ആൾക്കാരും പിന്നെ എം എൽ എ കളക്ടർ അങ്ങനെയുള്ളവർ തന്നെയാണ് അവർ കൊണ്ടുവരുന്ന മാറ്റങ്ങളും എല്ലാം തന്നെയാണ് പിന്നെ എന്നു പറയുന്നത് ഇവിടെ താമസിക്കുന്ന ജനങ്ങളാണ് അവർ അവരുടെ നിത്യംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമവും പരിശ്രമവും എല്ലാംകൊണ്ടും ഉണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ് പിന്നെ അതിനെല്ലാം വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് അവരുടേതായ ഒരു ഉന്നതത്തിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതാണ് അവർ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കും അവരുടേതായ രീതിയ്ക്ക് മുന്നോട്ട് പോവാനായിട്ട് ഓരോരോ പദ്ധതികൾക്ക് വേണ്ടിയിട്ടും എല്ലാം ശ്രമിക്കുകയാണ് പിന്നെ ഇന്നത്തെ വയനാട് ജില്ലയിൽ ഉള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള പാർട്ടി നേതാക്കൾ ആണെങ്കിലും എല്ലാവരും തന്നെ ഓരോരോ പദ്ധതികളായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് കോഴി ഫാം റിയൽ എസ്റ്റേറ്റ് പിന്നെ അങ്ങനെ ഉള്ള എല്ലാം പിന്നെ കാർ ഷോറൂമുകൾ അങ്ങനെ എല്ലാം തന്നെ അവരുടെ എല്ലാവരുടെയും ജീവിതം മാറി മാറ്റിമറിക്കാൻ ഒരു കാരണം തന്നെയാണ്